എഴുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരിതാണ് വല്ലാത്തൊരു ഫീലിങ്ങ്സ് ആണ് കാരണം ഇപ്പോഴത്തെ കാലത്ത് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്ന മാതിരിയാണ് എഴുത്ത് പറയുന്നത് ആ നമ്മൾ കാര്യം കൊണ്ട് ഇഷ്ടപ്പെട്ടു അതിനെ എഴുത്തിലൂടെ വർണ്ണിക്കുക അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു നമ്മിൽ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് രാത്രി നമ്മളുടെ യാത്രയിൽ അപ്പോഴൊരു കാര്യം കാണുമ്പോൾ ഒരു സ്ഥലം കാണുമ്പോൾ അതിനെയൊക്കെ മനോഹരമായി വർണ്ണിക്കുക അതു നമ്മൾ എഴുതി വെക്കുന്നതിലൊക്കെ എന്നും മനസ്സിൽ ഉൾക്കൊള്ളുന്ന കാര്യമാണ് എത്ര കാലം കഴിഞ്ഞാലും ണ്ടും ബാക്കിയുള്ള ഫോട്ടോസ് കാര്യങ്ങളും മാതിരിയല്ല എഴുത്ത് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതി വെച്ചു കഴിഞ്ഞാൽ കാലാകാലവും ഉണ്ടാകും അതാണെഴുത്തിൻ്റെ പ്രത്യേകത പിന്നെ അപ്പോൾ എൻ്റെ പേഴ്സൺ എടുത്തു നോക്കുകയാണെങ്കിൽ എൻ്റെ ഒഴിവു സമയങ്ങളിൽ യാത്രയിൽ ഒക്കെ നമുക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങൾ നമ്മൾ നമുക്കനുയോജ്യമായ സ്ഥലം കാണുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് എഴുതാനും വർണ്ണിക്കാനും വിചാരിക്കും അതിലിപ്പോൾ പ്രത്യേകമായിട്ടിപ്പം വീട്ടിൽ നിന്നു തന്നെയാണ് എഴുതാനും ഏറ്റവും അനുയോജ്യവും സുഖമായ സ്ഥലം കാരണം നമ്മൾ ഫ്രീയാണ് അതേ മാതിരി മറ്റ് ഡിസ്റ്റർബൻസ് കാര്യങ്ങൾ ഒന്നും ഉണ്ടാകില്ല നമുക്ക് ഫ്രീയായിട്ട് നമ്മളുടെ സൗകര്യത്തിന് നമുക്ക് നമ്മളുടെ വീട്ടിൽ നിന്ന് എഴുതാം പിന്നെ വീട്ടിൽ നിന്നു തന്നെയാകുമ്പോൾ ജോലിയും കാര്യങ്ങളും കഴിഞ്ഞു വന്ന് രാത്രി സമയങ്ങളിലാണ് എഴുതാൻ ഇരിക്കുക രാത്രിയാകുമ്പം തന്നെ പൊതു ഉറങ്ങുകയായിരിക്കും ഇപ്പം ഇടക്കുന്നാരെങ്കിലും ശല്ല്യപ്പെടുത്താനോ വിളിക്കാനോ ഒന്നും ഉണ്ടാകില്ല നമ്മൾ നമ്മുടേതായ ലോകത്ത് നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടമുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനും എല്ലാറ്റിനും നമുക്ക് ഒരുപാട് സമയമുണ്ടാകും സമയം ഡിസ്റ്റർബൻസ് ഇല്ലാതെ ചിന്തിക്കാനും എല്ലാറ്റിനും സമയമുണ്ടാകും രാത്രി ആകുമ്പോൾ അതേ പോലെ വീട്ടിൽ നിന്നാകുമ്പോൾ പിന്നെ പറഞ്ഞില്ലേ എഴുത്തെന്നുള്ളൊരു ഒരു ഫീലിങ്ങ്സെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തെക്കുറിച്ച് വർണ്ണിച്ച് അതിനെക്കുറിച്ച് മറ്റുള്ളവർ ഇത് വായിക്കുമ്പോൾ ഓൽക്കത്

ചിലർക്കാ ഫീലിങ്ങ്സ് കിട്ടുന്നുണ്ടെന്ന് നമ്മളറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രത്തോളമുണ്ട്